കഥകളി മോഹിനിയാട്ടം കൂടിയാട്ടം കളിയാട്ടം തുടങ്ങിയ തദ്ദേശീയ കല കലാരൂപങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ഷേത്രാങ്കണത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരിതാണ് അതു നമുക്ക് പുറത്തു കൊണ്ട് വ വന്ന് ഇപ്പം സ്കൂൾ കലോത്സവങ്ങൾക്കൊക്കെ ആന്നെങ്കിലും കഥകളി മോഹിനിയാട്ടമൊക്കെ പ്രദർശിപ്പിക്കുന്നത് എല്ലാരിലും ഒരു പ്രയൊ പ്രചോദന രീതിയായിരിക്കുന്നത് പ്രയോജനമാകും പിള്ളേരെ കഴിവുകൾ വളർത്തിക്കൊണ്ട് വരാനും ഇതു ക്ഷേത്രാങ്കണത്തിൽ മാത്രം ഒതുങ്ങിപ്പോകാനുള്ള ഒന്നല്ല പ്രത്യേകിച്ച് ഇപ്പം കുറേ കുട്ടികൾക്ക് ഇതിനുള്ള കഴിവു കാണും അപ്പോൾ കുട്ടികളെ കഴിവുകൾ വളർത്തിയെടുത്തു കൊണ്ടു വരാനായിട്ടും കോളേജുകളിൽ കലോത്സവ സ്കൂളുകളിലും കോളേജുകളിലും കലോത്സവ വേദികളൊക്കെ ഇതു കൂടുതലായിട്ട് കൊണ്ടുരണ്ട ഒരിതാണ് കൊണ്ടെന്നു കഴിഞ്ഞ് ഇതൊക്കെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ടു പിള്ളേരെ കഴിവുകളെ വളർത്തി എടുക്കാനൊക്കെയായിട്ട് കൊണ്ടു വന്നൊരു രീതിയാണ് ഇതു പ്രദർശിപ്പിക്കാൻ പറ്റുന്നത് സ്കൂൾ കലോത്സവങ്ങളും പിന്നെ അവാർഡ് ഫങ്ഷനുകളും അവാർഡ് ഫങ്ഷനുകളൊക്കെ അവാർഡ് ഫങ്ഷനിലൊക്കെ ഇതു പോലെയുള്ള കലാരൂപങ്ങൾ രൂപങ്ങളൊക്കെ ഇറക്കിയാൽ അതു പ്രത്യേകമൊരു ഭംഗി തരുന്ന ഒരിതാണ് പിള്ളേർ കഴിവുകളെ വളർത്താനും ഇതൊരാളായിട്ട് ഒതുങ്ങിപ്പോകു പോകാതെ പുതിയ തലമുറയെ വാർത്തു കൊണ്ട് വരാനും പുതിയ തലമുറക്കുള്ള കഴിവിനും കാര്യങ്ങൾക്കൊക്കെ പിള്ളേർക്ക് കൂടുതൽ പ്രചോദനം നൽകാനും ഒക്കെ ഇങ്ങനെ പുറത്തു കൊണ്ടു വന്നാൽ സാധിക്കും കുറേ പേർ ഇതിലോട്ട് ഇതിൽ പങ്കെടുക്കാനും അവരുടെ കഴിവുകളെ വളർത്തിക്കൊണ്ട് വരാനൊക്കെ ഇത് പുറത്ത് കൊണ്ടെന്നാൽ പറ്റും മോഹിനിയാട്ടമൊക്കെ മോഹിനിയാട്ടമെന്നൊക്കെ പറയുന്നതൊരു കലാരൂപമാണ് ആ കലാരൂപത്തെ നമ്മളിങ്ങനെ ഒരിടത്തു മാത്രം ഒതുക്കിക്കളയാനുള്ളതല്ല അപ്പം അതീ അവാർഡ് ഫങ്ഷനുകളിൽ പിന്നേ കലോത്സവം പിന്നെ ഈ വിദേശത്തൊക്കെ പോയി പ്രോഗ്രാമുകൾ ഒക്കെ ചെയ്യുമ്പം അവിടെ ഇതൊക്കെ പ്രദർശിപ്പിക്കാവുന്ന ഒന്നാണ് മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാണ് മറ്റുള്ളവർക്കും അത് അറിഞ്ഞിരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കളിച്ചു കൊണ്ടിരിക്കുന്നവർ മാത്രമല്ലാതെ പുതിയ തലമുറയെ വാർത്ത് പുതിയ തലമുറയ്ക്കും കൂടെ കൊടുക്കാൻ പറ്റുന്നൊരു രീതിയാണ് ഇപ്പം ചെയ്തു കൊണ്ടിരിക്കുന്നവർ മാത്രം അതിലൊതുങ്ങി ക്ഷേത്രത്തിലൊക്കെ മാത്രം ഒതുങ്ങിപ്പോകേണ്ട ഒന്നല്ല നമുക്കിപ്പം കൊണ്ടു വരാനായിട്ട് കുറേ മാർഗ്ഗങ്ങളുണ്ട് ഈ കാലത്ത് ഇഷ്ടം പോലെ മാർഗ്ഗങ്ങളുണ്ട് പുറത്തു പ്രദർശിപ്പിക്കാനായിട്ടുള്ള പ്രത്യേകിച്ച് പുതിയ പിള്ളേരെ ഇതിലോട്ട് അതായത് പഠിച്ച പിള്ളേരെ വളർത്തുന്നതോടൊപ്പം തന്നെ പുതിയ പുതിയതായിട്ട് പുതിയ പിള്ളേരെ ഇതിലോട്ടു വളർത്തിയെടുത്തു കൊണ്ടു വരാനുള്ള ഒരു സാഹചര്യവും കഴിവും ഒക്കെയതിനു സാധിക്കും അങ്ങനെ വളർത്തിയെടുത്തു കൊണ്ട് വരുവാ ഇപ്പോഴത്തെ തലമുറയാണ് ഇപ്പോൾ വളർന്നു വരുന്നവരാണ് പിന്നത്തെ തലമുറ നയിക്കാനുള്ളത് അപ്പം അവരിലെ കഴിവുകളും ഇതെല്ലാം വാർത്തെടുത്ത് മൊത്തത്തിൽ എല്ലാം പ്രദർശിപ്പിക്കാനുള്ള അവരുടെ കഴിവുകളെ പ്രദർശിപ്പിക്കാനും പ്രദർശിപ്പിക്കാനായിട്ട് പറ്റും അതിനു പറ്റുന്ന രീതിയിലാണ് അവാർഡ് ഫങ്ഷൻ പിന്നെ ഈ പുറത്തൊക്കെ പോയി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി പരിപാടി അവതരിപ്പിക്കുക കലോത്സവം കലോത്സവങ്ങളൊക്കെ കൂടുതൽ ഇതാക്കുക അങ്ങനെയുള്ള രീതികൾ പിന്നെ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇത് പ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് ഓൺലൈൻ പ്ലാറ്റ് പ്ലാറ്റഫോമിലിതു നമുക്ക് തരുമെന്നാ അവതരി വീഡിയോ പിടിച്ചൊക്കെ ഇട്ടു കഴിഞ്ഞാൽ കാണാനൊക്കെ ആൾക്കാരുണ്ടാകും അവരുടെ കഴിവുകളെ മനസ്സിലാക്കാനൊക്കെ സാധിക്കും അങ്ങനെയൊക്കെ ഈ കഥകളി മോഹിനിയാട്ടം അങ്ങനെയൊക്കെയുള്ള കലാരൂപങ്ങളെ നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റും പ്രദർശിപ്പൻ പ്രത ഇങ്ങനെയുള്ള പ്രദർശനങ്ങളിലൂടെ പുതിയ പിള്ളേർക്ക് ഊർജജം കൊടുക്കുകയും അവരെ കൂടുതലായിട്ട് ഇതിലോട്ട് ഇതാക്കുകയും അങ്ങനെ കലാരൂപം നമുക്ക് പുറത്തു കൊണ്ടുവന്ന് എല്ലാവരും അരി അറിയുന്ന രീതിയിൽ പ്രദർശിപ്പിക്കാനായിട്ട് പറ്റുന്ന ഒന്നാണ്